ശാസ്ത്രസാങ്കേതികരംഗത്തെ പുരോഗതി ആരോഗ്യമേഖലയെ വളരെ നല്ല രീതിയിലാണ് എന്താണ് ആ പുരോഗതി ആരോഗ്യമേഖലയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ആരോഗ്യരംഗത്തുള്ള പല കാര്യങ്ങളും സുഗമമായിട്ട് നടത്തുന്നതിന് വേണ്ടീട്ട് ശാസ്ത്രസാങ്കേതികവിദ്യ വളരെയധികം സഹായിച്ചു ഡയാലിസിസ് മെഷീൻ പോലെയുള്ള മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന സാധനങ്ങൾ അത് ജീവൻ നിലനിർത്തുന്ന ആ ജീവന് തന്നെ ഓരോ ജീവനും അത്രത്തോളം വിലപ്പെട്ടതാണ് അപ്പം ജീവൻ നിലനിർത്തുന്ന ആ സാധനങ്ങൾ തന്നെ ശാസ്ത്രസാങ്കേതിക പുരോഗതിയുടെ ഒരു ഫലമായിട്ട് ഉണ്ടായതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഡയാലിസിസ് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ മാത്രം കാര്യമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ബി പി അളക്കുന്നതായിരുന്നാലും നമ്മളുടെ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ ആയിരുന്നാലും ഒരുപാട് പ്രവർത്തനങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് പിന്നെ കോവിഡ് കാലത്തിൽ കോവിൻ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തിട്ട് കോവിഡിൻ്റെ പ്രതിരോധ കുത്തിവെയ്പ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളവർക്കും എനിക്കും അത് വളരെയധികം പ്രയോജനപ്പെട്ടതാണ് നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും അതുവഴി വളരെയധികം പ്രയോജനം ഉണ്ടായിട്ടുണ്ട്